ഹലോ ആതിര ടീച്ചർ അല്ലേ ഇത് ഞാൻ അശ്വിൻ്റെ അമ്മയാണ് അശ്വിൻ നാളെ ക്ലാസ്സിൽ വരില്ല കേട്ടോ അവന് മാമൻ്റെ കല്യാണമായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവുകയായിരുന്നു ഞങ്ങൾ മാമൻ്റെ കല്യാണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തറവാട്ടിലെ മൂത്ത കുട്ടിയാണേ അപ്പോൾ അവനാണൊരു സഹായത്തിനുള്ളത് ടീച്ചറേ അങ്ങനെ പറയരുത് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പട്ടാമ്പിയാണേ പോവുന്നത് കുറേ ദൂരെ ആയതുകൊണ്ട് കുട്ടീനെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവുന്നത് ശരിയല്ലല്ലൊ അതുകൊണ്ടാണ് ഒപ്പം കൊണ്ടുപോവുന്നത് കുട്ടികളുടെ ഫാഷനും നമുക്കറിയില്ലേ അവർക്ക് ഞാനൊന്നും എടുത്താൽ പറ്റില്ല ഡ്രസ്സേ അവരെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പിന്നെ തല്ലായിരിക്കും അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആണെങ്കിൽ കോയമ്പത്തൂരാണേ ഡ്രസ്സ് എടുക്കാൻ പോവുന്നത് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണേ കുട്ടിക്കിപ്പോൾ ആ ഇപ്പോൾ ഇവൻ മാത്രമേ ഉളളൂ ആൺകുട്ടിയായിട്ട് ഇപ്പോൾ മാമനൊരു സഹായമാവും ഇവൻ ഒപ്പം പോയിട്ടുണ്ടെങ്കിൽ അല്ല ടീച്ചറേ അവൻ ഇവിടുന്ന് ട്യൂഷന് പൊവുന്നുണ്ടേ അപ്പം ആ മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ടീച്ചറും പറഞ്ഞ് കൊടുക്കുമല്ലോ അപ്പോൾ പിന്നെ അതിന് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മെയിൽ അയയ്ക്കുക അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എനിക്ക് ഈ വാട്സാപ്പ് അല്ലാതെ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അധികം ഉപയോഗിച്ച് ശീലം ഇല്ലാത്തതുകൊണ്ടേ ആ ശരി ടീച്ചറേ അതിൽ എന്താണ് പ്രത്യേകിച്ചൊന്നും എഴുതേണ്ടല്ലോ സ്കൂളിൻ്റെ പേര് മാത്രം എഴുതിയിട്ട് പിന്നെ കാര്യം എഴുതിയാൽ പോരേ ആ ഓക്കെ ശരി